ഇപ്പം ഇവിടെ ഞങ്ങടിവിടെ നല്ല കനത്ത മഴ ആയതും മഴ ആയതുകൊണ്ട് ഇവിടെ രാത്രി കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഫുഡൊന്നും നമുക്ക് കിട്ടിയില്ല ഇവിടെ അടുത്തുള്ള ഹോട്ടലും കാര്യങ്ങളുമെല്ലാം അടച്ചു അപ്പം ഓർഡറ് ചെയ്തിട്ട് ഫുഡ് നമുക്ക് ഇന്നതാണ് വേണ്ടിയത് അപ്പം ചിക്കനാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ ഇന്ന ഫുഡൊന്ന് നമുക്ക് ഈ ലൊക്കേഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് എത്തിക്കുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ അത് കിട്ടുക ആയിരുന്നെങ്കിൽ ഞങ്ങളിവിടൊരു നാല് പേരുണ്ട് ഞങ്ങൾക്ക് അത്രേം ഫുഡ് കഴിക്കാൻ വേണ്ടി ആയിരുന്നു അസൗകര്യമില്ലെങ്കിൽ ഒന്ന് എത്തിക്കുക ആയിരുന്നെ വലിയ ഉപകാരമായിരുന്നു ഒന്ന് ഒന്ന് ശരിക്കൊന്നു നോക്കീട്ട് ഒന്ന് ചെയ്യുമായിരുന്നെങ്കിൽ ഒന്ന് പറ്റുവോ ഇല്ലയോ എന്ന് ഇപ്പം തന്നൊന്ന് പറയുവാരുന്നെങ്കിൽ വലിയ ഉപകാരം കാരണം കറണ്ടുമില്ല മ ക് നല്ല മഴ ഉണ്ട് എത്തിക്കാൻ സാധി സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്ന് എത്തിക്കാമായിരുന്നെങ്കിൽ ഇറ്റ്സ് റിയലി ഹെല്പ്ഫുൾ ഒന്ന് ശ്രമിക്കണം ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തോണ്ടാണ് ഞങ്ങൾ ഇത്രേം രാത്രിയായിട്ട് ഞങ്ങൾ വിളിച്ചത് മഴയുണ്ട് ഞങ്ങൾക്കറിയാം എന്നാലും ഒന്ന് ശ്രമിക്കണം പ്ളീസ് വേറെ വഴി ഇല്ലാത്തത് കൊണ്ടാണ്